ഹലോ ഞാൻ ചൂടുള്ള പാനീയത്തിന് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ചൂട് ഡെലിവറി ചെയ്യുമ്പോൾ അതെന്തായാലും ചൂടുണ്ടായിരിക്കണം തണിയാൻ പാടില്ല എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം കുറച്ച് ചൂടുള്ള പാനീയത്തിനാണ് എൻ്റെ ആവശ്യം അപ്പം അത് അതുകൊണ്ട് പാക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ട് തണിയാത്ത രീതിയിൽ തണുക്കാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് തരണം അതെനിക്ക് ആ ചൂട് ചൂടുള്ള വെള്ളം തന്നെയാണ് ആവശ്യമായി വരുന്നത് അത് ബോട്ടിലിലോ അല്ലങ്കിൽ ഫ്ലാസ്ക്കിലാക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ രീതിയിലായിട്ട് അത് അത്യാവശ്യം ചൂട് നിൽക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് കൊണ്ടു തരണം ആ ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് റിസീവ് ചെയ്യില്ല എന്തായാലും എനിക്ക് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചൂടായിട്ട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ചൂടുള്ളതായിട്ടുള്ള പാനീയം തന്നെ ഓർഡറ് ചെയ്തത് കുറേ കുറച്ച് നേരം ചൂടായിരിക്കാനുള്ള പാക്കേജിങ് ആയിട്ട് ചെയ്ത് വിടണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണിഞ്ഞ് കഴിഞ്ഞാ പിന്നത് എനിക്ക് യൂസബൾ അല്ല അതുകൊണ്ട് യൂസ് ചെയ്യാൻ പാകത്തിന് തണിയാത്ത രീതിലുള്ള പാക്കിങ് ആയിരിക്കണം അത് തണിഞ്ഞ് കഴിഞ്ഞാ പിന്നെ എനിക്ക് എൻ്റെ ആവശ്യം നടക്കില്ല അതുകൊണ്ട് എന്തായാലും കൊറച്ച് നേരത്തേക്ക് ചൂടുള്ള രീതിയിൽ തന്നെ നിങ്ങള് പാക്ക് ചെയ്ത് തരണം